നമ്മുടെ ഇൻഡ്യയിലെ ഭക്ഷണ രീതികളെന്നു പറഞ്ഞാല് കൂടുതലും വടക്കേ ഇൻഡ്യൻ ഭാഗങ്ങളിലോട്ടൊക്കെ ചപ്പാത്തി അങ്ങനെയുള്ള ഭക്ഷണവാണ് കൂടുതലും താല്പര്യം കാണിക്കുന്നെ ചപ്പാത്തിയാണ് പിന്നെ അതിപ്പോള് നമ്മുടെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും അത് അങ്ങനെ തന്നെ പോവു മുന്നോട്ട് പോവുന്നു പിന്നെ അതുപോലെതന്നെ കൂടുതലും ഡിന്നറായിട്ട് എല്ലാവരും തന്നെ ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ക്വ അതിൻ്റെ കൂടെ ഇപ്പോള് ഇപ്പോഴത്തെ കൂടുതലും കുറച്ചു പേരെങ്കിലും ചോറ് ഉപയോഗിക്കാറുണ്ട് ഉച്ച് പകല് ഉച്ചക്കത്തെ സമയത്ത് ചോറുപയോഗിക്കുന്നവരുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ സാധാരണ ചപ്പാത്തിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ മസാലകളെന്നു പറഞ്ഞാല് കൂടുതലും ഇപ്പോഴെന്നു പറഞ്ഞാൽ നല്ല ചില കൂടുതലും അ ആൾക്കാർക്ക് രുചികരമായിട്ടുള്ള മസാലകളൊക്കെ ഇപ്പോള് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഉള്ള ചാറ്റ് മസാല അങ്ങനെയുള്ള സാ മസാലകളാണ് കൂടുതലും കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും പെട്ടെന്ന് ടേസ്റ്റായിട്ടുള്ളത് ഭക്ഷണങ്ങള് എന്ന് പറയുന്ന ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളെന്നല്ല ഉദ്ദേശിക്കുന്നേ ടേസ്റ്റ് എങ്ങനെയാണ് നല്ല കൂടുതലും അവർക്ക് ഇഷ്ടം തോന്നുന്നത് എങ്ങനെയുള്ള ഭക്ഷണമാണെന്നു വച്ചാൽ അത് വാങ്ങിച്ചു കഴിക്കാനും ഉപയോഗിക്കാനുമാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നാല് കൂടുതലും നല്ല രീതിയിലുള്ള വീടുക വീടുകളിലൊക്കെ ഉള്ള ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാല് നല്ല രീതിയില് നമ്മള് പഴയ കാലത്തതുപോലെ തന്നെ നല്ല മസാലകളെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ മല്ലിപൊടി മുളകുപൊടി അല്ലെങ്കി അങ്ങനെയുള്ള ചിക്കൻ മസാല ബീ ബീഫ് മീറ്റ് മസാല അതൊക്കെ നമ്മള് കഴിവതും ഒഴിവാക്കുകയാണ് ചെയ്യാറ് ചെയ്യേണ്ടത് നമ്മള് വീട്ടില് തന്നെ ഉപയോഗിക്കുന്ന ഓ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ ഉണ്ടാക്കുന്ന മസാലകളാണെങ്കിലാണ് ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിനു നല്ലത് എന്നാൽ പോലും ആൾക്കാർക്ക് ജനങ്ങൾക്ക് കൂടുതലും ഇപ്പോള് പെട്ടെന്ന് സമയം കുറവ് കൊണ്ടും വേഗന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മസാലകളാണേലും എല്ലാം ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്നതിനോടാണ് ആൾക്കാർക്ക് താല്പര്യം അതുകൊണ്ടു തന്നെ പുറത്തുന്നുണ്ടാക്കുന്ന ചാറ്റ് മസാല പോലെ ഉള്ള മറ്റുള്ള മസാലകളുപയോഗിക്കുന്നതാണ് കൂടുതലും ജനങ്ങൾക്ക് ആൾക്കാർക്കിഷ്ടം അപ്പോള് ഏറ്റവും ആരോഗ്യമെന്നു പറയുന്നത് ഇതു തന്നെയാണ് അതുപോലെതന്നെ നമ്മുടെ വീട്ടില് നമ്മൾ നമ്മുടെയൊക്കെ വീടുകളില് തന്നെ നമുക്കൊക്കെ ഇപ്പോള് കുടുംബശ്രീ അങ്ങനെയുള്ള സം സംരംഭങ്ങളിലൂക്കെയൂടെ അല്ലെങ്കില് ജാസ് അങ്ങനെ ഉള്ള സംരംഭങ്ങളിലൊക്കെ ഊടെ ഒരുപാട് സാധനങ്ങള് നമ്മള് നം വീട്ടില് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെയുണ്ട് അതൊക്കെ നമ്മള് വാങ്ങിച്ച് ഉപയോഗിക്കുന്നെ ആയിരിക്കും നല്ലത് അതിപ്പോള് പിന്നെ അത് നമ്മള് കൈകാര്യം ചെയ്യുന്നെ ആണ് ഏറ്റവും ഗുണം ഗുണം ശരീരത്തിനെപ്പോഴും അസുഖങ്ങളൊക്കെ ഒരുപാട് രോഗങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് നമുക്കേറ്റവും നല്ലത് അതൊക്കെയാണ് നമ്മളത് വാങ്ങിച്ച് അത് ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നാണ് എല്ലാ എന്തുകൊണ്ടും നല്ലത് പിന്നെ കോ ആൾക്കാർക്കേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപോലെ ഇതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ താല്പര്യം ഉള്ളതെന്നു ഞാൻ പറഞ്ഞു അതു കാരണം കൂടുതല് ജനങ്ങൾക്കിഷ്ടം പിന്നെ നമ്മുടെ ഭക്ഷണരീതി ഇപ്പോള് മസ ചപ്പാത്തി അല്ലെങ്കില് പൂരി ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനെ ഉള്ള ഭക്ഷണങ്ങളാണ് നമ്മള് ഭക്ഷിക്ക കഴിക്കാറ് അതിൻ്റെ കൂടെ ചോറ് കഴിക്കുന്നവരുണ്ട് അതൊക്കെയാണ് നമ്മളുടെ ഇൻഡ്യയിലെ ഭക്ഷണ രീതികളെന്നു പറയുന്നത് നമ്മളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളത് കൊണ്ടു പോകുന്നത് പിന്നെ നമുക്കേറെ ശരീരത്തിന് നമുക്ക് കൂടുതൽ ഇഷ്ടവും അതൊക്ക ആരോഗ്യപരമായിട്ടുള്ളതും വച്ച് നോക്കിയാൽ അതാണ് ഏറ്റവും നല്ലത് ഈ പറോട്ട അങ്ങനെയൊക്കെ കഴിക്കത്തില്ലെന്നല്ല ആൾക്കാർക്ക് നമ്മുടെ നാട്ടില് പറോട്ടയും സുലഭമാണ് അതും കൂടുതല് കഴിക്കുന്നവരാണ് കൂടുതലാൾക്കാരും കഴിക്കുന്നവരാണ് കൂടുതലാൾക്കാരും അപ്പോള് അത് ആരോഗ്യത്തിന് ഇത്രത്തോള അത് ദോഷം ചെയ്യുമെന്ന് അത് ചിന്തിക്കാതെയാണ് എല്ലാവരും വേഗംന്ന് എളുപ്പം ചെയ്യാനായിട്ട് അല്ലെങ്കില് എളുപ്പം ചെന്ന് വാങ്ങിച്ചു കഴിക്കാൻ പെട്ടെന്ന് നോക്കിക്കഴിക്കുന്നവരാണ് കൂടുതലാൾക്കാരും അതുകൊണ്ട് അത് നോക്കാതെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നാണ് ഏറ്റവും നല്ലത് ഉണ്ടാകാനുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഉള്ളത് കഴിക്കുന്നത് കഴിക്കുകയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതോ അല്ലെങ്കില് നമുക്ക് ആ ശരീരത്തിനും ദോഷം വരാത്തതോ കഴിക്കുന്നതോക്കെ അല്ലെ നമ്മുടെ ജീവിതം നമുക്ക് നേ ജീവിതത്തില് മുന്നോട്ട് കൊണ്ടു പോവാനായിട്ട് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടു പോവാൻ ഏറെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ ഉള്ള ഭക്ഷണ സാധനങ്ങള് നമ്മള് സേ ഉണ്ടാക്ക തെരഞ്ഞടുത്ത് കഴിക്കുക ുണ്ടാക്കി കഴിക്കുക അതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്